ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസമേഖല നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചു വരുന്നിട്ട് ഉള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓട് ഇട്ട സ്കൂളുകള് ഇപ്പോൾ ഓട് എപ്പോഴാ പൊട്ടി ചാടി വീഴുകയെന്ന് പോലും അറിയാത്ത ഓരോ സ്കൂളുകൾ ഒക്കെ ആയിരിക്കും നമ്മുടെ പണ്ടത്തേതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭിത്തി ഒക്കെ അതായത് ചോർച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പണ്ട് ഉണ്ടായിരുന്ന സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതില് നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഫുള്ള് വാർക്ക വീട് നമ്മൾ അടിയെല്ലാം ടൈല് നല്ല ബെഞ്ചുകൾ ഇപ്പോൾ എല്ലാം നല്ല ഇരുമ്പിൻ്റെ ബെഞ്ചുകൾ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ അതിൻ്റെ കാല് അപ്പോൾ ആ പണ്ടത്തെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാലൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞിട്ട് നമ്മുടെ കാലിലേക്ക് തന്നെ വീണേക്കാം അങ്ങനത്തെ ബെഞ്ചുകൾ ആയിരുന്നു പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ എഴുത്തും കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള ഹൈടെക് ആയി മാറിയിട്ടുണ്ട് ഇപ്പോൾ എഴുത്ത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോജക്ട് പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ വെച്ച് അതിലൂടെ നമുക്ക് പഠിപ്പിക്കാം ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോകള് വീഡിയോ ആക്കി പഠിപ്പിക്കുക അതിലൂടെ നമുക്ക് നോട്ട് ചെയ്ത് തരുക അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം